ഞങ്ങളുടെ പ്രാദേശിക പത്രമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഞങ്ങൾ ഇവിടെ വായിക്കണേയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ മാതൃഭൂമിയാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പത്രമെന്ന് പറഞ്ഞാൽ മാതൃഭൂമി തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഈ ഓരോ പാർട്ടികളെ ഉദ്ധരിച്ചിട്ടുള്ളൊരു പരിപാടികൾ അങ്ങനെ കൂടുതലായിട്ടു എഴുതാറില്ല ആ പാർട്ടികളെക്കുറിച്ച് എഴുതുകയാണെങ്കിലും എല്ലാ പാർട്ടികളെക്കുറിച്ചും അതിനകത്ത് എഴുതാറുണ്ട് അത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഓരോ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് നല്ല രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പാർട്ടിയെക്കുറിച്ച് മാത്രം എഴുതുക ആ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൂടുതലായിട്ടും ഈ മലയാള മനോരമ ദേശാഭിമാനി മംഗളം മാധ്യമം ഇങ്ങനത്തെ പത്രങ്ങളെന്നൊക്കെ പറഞ്ഞാൽ കൂടുതലായിട്ടും അവരുടെ പാർട്ടിക്കാരെ ഉദ്ധരിച്ചുകൊണ്ട് മാത്രമേ എഴുതാറുള്ളൂ ഇപ്പം അതെനിക്കൊരു നല്ല ശീലമായിട്ട് തോന്നിയിട്ടില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ മാതൃഭൂമി തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം